അപ്പോൾ നമ്മുടെ സംസ്കാരത്തിലെന്നു പറഞ്ഞ് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ആരെങ്കിലൊക്കെ മരിച്ചു കഴിഞ്ഞാൽ അവർക്ക് ബലിയും കാര്യങ്ങളൊക്കെ ഇടണം അപ്പോൾ അങ്ങനത്തെ പല പല രീതിയിലുള്ള പരിപാടികൾ നമ്മുടെ സംസ്കാരത്തിൽ നടക്കുന്നുണ്ട് ഇപ്പോൾ ഒരു കല്യാണത്തിനാണെങ്കിൽ തന്നെ നമ്മടെ പൂജയും കാര്യങ്ങളൊക്കെയുണ്ട് അത് കഴിഞ്ഞിട്ട് വേണം കല്യാണവും കാര്യങ്ങളൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ വീട്ടിൽ നമുക്ക് ഒരു പൂജയും കാര്യങ്ങളൊക്കെയുണ്ടാവും അത് കഴിഞ്ഞിട്ട് വേണം താലി കെട്ടാനൊക്കെ വേണ്ടിയിട്ട് വീട്ടിലാണ് കൂടുതലായിട്ടും കല്യാണം നടത്തുന്നതെങ്കിൽ മാത്രം ഇപ്പോൾ അമ്പലങ്ങളിലൊക്കെയാണെങ്കിൽ അമ്പലത്തിലെ പൂജയൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്പൂതിരി വന്നിട്ട് നമ്മൾക്ക് താലി എടുത്ത് തരുക നമ്മുടെ അച്ഛനും അമ്മയുമൊക്കെ കൈ പിടിച്ച് കൊടുക്കുക എന്നിട്ട് വലം വയ്ക്കുക അതായത് നമ്മൾ താലി കെട്ടിയ സ്ഥലത്ത് നിന്ന് അവിടെ നിന്ന് നമ്മൾ മൂന്ന് വട്ടം വലം വയ്ക്കുക പെണ്ണിന്റേയും കൈ പിടിച്ചിട്ട് അങ്ങനെയൊക്കെയാണ് കൂടുതലായിട്ടും താലി കെട്ടിലൊക്കെ വരുന്നത് ഇപ്പോൾ മരിച്ചു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ആരെങ്കിലും ഒക്കെ മരിച്ചു കഴിഞ്ഞാലവർക്ക് വേണ്ടിയിട്ട് ബലിയും കാര്യങ്ങളൊക്കെ ഇടുക അപ്പോൾ അതിന് നമ്മൾ നമ്മൾ നമ്മൾ മോതിര വിരലിൽ ദർഭ അതായത് ദർഭകൊണ്ട് ദർഭയെന്നാണ് പറയുക അതിന് ഒരു ദർഭ പുല്ലെന്നു പറഞ്ഞിട്ട് അതുകൊണ്ട് നമ്മൾ ഇതൊക്കെ ഇട്ടിട്ട് അതായത് ഒരു മോതിരവും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടാണ് കൂടുതലായിട്ടും അങ്ങനത്തെ ആചാരങ്ങളൊക്കെ ചെയ്യുന്നതെന്ന് പറയാം